എനിക്ക് ബൈക്കിൻ്റെ കൂട്ടത്തിലെറ്റവും ഇഷ്ടം പൾസറാണ് പൾസർ വൺ ഫിഫ്റ്റി ഒക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഒരു ഹോണ്ടാ ആക്റ്റിവയാണ് ഇനി ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൾസറ് വാങ്ങിക്കാന്നുള്ളതാണ് എനിക്കെന്തോ അതിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനതിൽ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ സ്വന്തമായിട്ട് കൈയ്യിലില്ലന്നെ ഉള്ളു ദൂര യാത്രയ്ക്കൊക്കെ ഈ ആക്റ്റീവ അങ്ങനത്തെ വണ്ടിയാണ് സൗകര്യപ്രദം അതിൻ്റെ സീറ്റൊക്കെ കുറച്ച് വീതീയുള്ളതു കൊണ്ട് നമുക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഈ ആക്റ്റീവ പോലുള്ള വണ്ടിയിന്മേലൊക്കെ പോയിക്കഴിഞ്ഞാൽ നടുവ് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് പോവുമ്പോൾ നല്ല ലോങ്ങൊക്കെ പോവുമ്പോൾ നടുവ് വേദന അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ബൈക്ക് ഐറ്റെംസിൻ്റെ എല്ലാം സീറ്റ് കുറച്ച് വീതി കുറവായിരിക്കുമല്ലോ മറ്റേതൊക്കെ വീതി കൂടുതലായിരിക്കും അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടു പോകുമ്പോൾ മുന്നിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ആക്റ്റീവ അങ്ങനത്തെ വണ്ടിക്കാണ് കൂടുതലുള്ളത് എന്നാലും ബൈക്ക് തന്നെയാണ് പൊതുവേ ഇഷ്ടം മെയിൻ എന്ന എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയെന്ന് വെച്ചാൽ പൾസറാണ്